ഹലോ

ടീച്ചറേ ഞാൻ ഡെല്ല ആയിരുന്നു ആ ടീച്ചറെ എനിക്കാണെങ്കിൽ കഥകളി പഠിക്കണമായിരുന്നു ആ അപ്പം അതിനെകുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്

പഠിക്കാൻ ഇഷ്ടമായിരുന്നു എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ കയറി അരങ്ങേറ്റം ഒക്കെ കാണുമ്പോൾ കൊതിയാകുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻകൂടെ അങ്ങ് പഠിച്ച് കളഞ്ഞേക്കാം എന്ന്

ഇതു വച്ച് എങ്ങനെയാണ് ഞാൻ ടാഗ് ചെയ്യുന്നത് എത്ര രൂപ ഒക്കെ ആകും ഇതിന് എത്ര നാൾ നീണ്ടുനിൽക്കും ഞാനൊന്ന് അരങ്ങേറ്റം വരെ എത്താൻ ഞാൻ പെട്ടെന്ന് പഠിക്കും ടീച്ചർ ഐ ആം എ ഫാസ്റ്റ് ലേണർ ഞാൻ പെട്ടെന്ന് പഠിക്കും ഇപ്പോഴത്തെ ഒരു ഊർജ്ജസ്വം കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ആ മ്മ് പതിനായിരം രൂപയോ മാസമോ മാസമോ ഓ ഓക്കേ ഓക്കേ ആ ടീച്ചറെ ഇത് ടീച്ചറിൻ്റ ഓൾറെഡി ഒത്തിരി പിള്ളേരുണ്ടോ പഠിപ്പിക്കാൻ വേണ്ടി അപ്പം ഇനി പുതിയ ബാച്ചാണോ അതോ ഇപ്പം ഉള്ള ബാച്ചിൻ്റ കൂടെ ജോയിൻ ചെയ്യാൻ

ഒന്നിച്ച് ഒന്നിച്ച് ഈ ബാച്ച് എന്നാണ് തുടങ്ങുന്നത് ആ ആ ആ ഓക്കെ ടീച്ചറേ എനിക്കാണെങ്കിൽ ക്ലാസൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാകുമോ ആ ആ ഓ ആ ഇത് ഈ അരങ്ങേറ്റം നമ്മൾ തന്നെയാണോ ചെയ്തത് അതോ എല്ലാവരുടേയും കൂടെ ബാച്ച് മൊത്തത്തിലാണോ

ആ ഓക്കെ ടീച്ചറെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ആ ടീച്ചർ തിരക്കായിരുന്നോ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു പിള്ളേരൊക്കെ എന്നാ പറയുന്നു ഇല്ലന്നെ ഞാൻ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ഉള്ള കൊതികൊണ്ട് അവരൊക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ വന്ന് പറയുകയും അപ്പോൾ എനിക്ക് എനിക്കൊരു താല്പര്യം വരുവല്ലോ എൻ്റെ മനസ്സ് ചാഞ്ചാടിയതാണ് ഏ അല്ലല്ലല്ല അവർ സാധാരണ ആൾക്കാരാണ് പിന്നെ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ച് തരുമേ കുറച്ച് താൽപര്യം ചെയ്യാൻ ആ അതെ അതെ ഞാൻ പിന്നെ വിചാരിച്ചു അവർ പ്രോത്സാഹിപ്പിച്ചു തന്നാൽ പഠിച്ചേക്കാമെന്ന് അങ്ങനെ ഓക്കെ ടീച്ചർ എങ്ങനെയാണ് പഠിച്ചത് കുഞ്ഞിലെ മുതലേ ടീച്ചർ കഥകളിക്കുകയായിരുന്നോ ടീച്ചർ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ ടീച്ചർ എത്ര വർഷമായി ഈ ഫീൽഡിൽ ആ ഓക്കെ ഓക്കെ ടീച്ചറെ ഞാൻ വലുതായി വലിയ വലിയ കഥകളിയൊക്കെ കളിക്കുന്ന ആളാകുമ്പോൾ പറയും എൻ്റെ ടീച്ചറായിരുന്നെന്ന് ആ ആ ആഹ് ആ ഓക്കെ ടീച്ചറെ എന്നാൽ ശരി കേട്ടോ താങ്ക്യൂ ഓക്കെ ടീച്ചറെ ഓക്കെ